നമ്മുടെ അടുക്കള എന്നത് പഴയ കാലത്തെ അടുക്കളയും ഇന്നത്തെ അടുക്കളയും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് മുഖ്യമായ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ ഉപകരണങ്ങളുടെ മാറ്റമാണ് അടുക്കളയിലെ പഴയകാലത്തെ ഉപകരണങ്ങൾക്ക് പകരം ഇന്നത്തെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വലിയ ഒരു മാറ്റം അടുക്കളയിൽ വരുത്തിയിട്ടുണ്ട് അതിൽ പെട്ടതൊന്നാണ് മിക് മിക്സി മിക്സി എന്ന് പറഞ്ഞാൽ മിക്സർ എന്നൊക്കെ നമ്മൾ പറയും മിക്സറ് ഗ്രൈൻഡറ് അതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ അമ്മിയും അമ്മി കുട്ടിയൊക്കെയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അങ്ങനെ അമ്മയും അമ്മ കുട്ടി അതൊരു വേറൊരു അനുഭവമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അതിനൊക്കെ എളുപ്പം വഴിയായിട്ട് മിക്സിയും ധാരാളം തരത്തിലുള്ള വളരെ വളരെ വ്യത്യസ്തമായ രീതികളിലുള്ള മിക്സ്ചറ് ഗ്രൈൻഡറുകളൊക്കെ ഇന്നത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണം വളരെ വലിയ മാറ്റമാണ് ഇപ്പോൾ അമ്മിയും അമ്മി കുട്ടിയും നമുക്ക് ഈ ഒരു വീട്ടിലും ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കഴിയില്ല പണ്ട് അതൊരു എല്ലാ വീട്ടിലെയും ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ പണ്ട് മുറ്റത്തടുപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ എല്ലാം ചെയ്തിരുന്നത് ഇപ്പോൾ ഫുൾ ഗ്യാസ് സിലിണ്ടർ ആണ് അതുപോലെ തന്നെ ഓവൻ്റെ കാര്യമായാലും പണ്ടത്തെ ആ ഒരു ആ ഒരു പണ്ടത്തെയൊരു മഹിമയെ മാറ്റിക്കളയുന്ന രീതിയിലാണ് ഈ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ ആ ഒരു ഇന്നത്തെ അടുക്കള ഭരിക്കുന്നത് തന്നെയെല്ലാം ഇലക്ട്രോണിക്സ് സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ പണ്ടത്തെയൊരു ഒരു വൈബ് ഇപ്പം കിട്ടുന്നില്ല ആ പഴമയുടെ ഒരു വൈബ് ഇപ്പോൾ കിട്ടുന്നില്ല